ഇന്ത്യയിലെ വിദ്യാഭ്യാസ രീതിയെ മറ്റ് രാജ്യങ്ങളുമായി എങ്ങനെ താരതമ്യം ചെയ്യാം എന്ന് നോക്കിയാൽ നമുക്ക് ഇവിടെ ഉള്ളതും അവിടെ ഇല്ലാത്തതും അല്ലെങ്കിൽ ഇവിടെ ഇല്ലാത്തതും അവിടെ ഉള്ളതുമായ കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നത് അതെന്തക്കെയാണെന്ന് വച്ചാൽ ഇന്ത്യയിൽ കൂടുതലും വളരെയധികം പുസ്തകം മാത്രം പുസ്തകം മാത്രം ബേസ് ചെയ്തിട്ടുള്ളൊരു പഠന രീതിയാണ് അതിനെ തിയറി ബേസ്ഡ് സ്റ്റഡി എന്ന് പറയും അങ്ങനെയുള്ള ഒരു പഠന രീതിയാണ് ഇന്ത്യയിലുള്ളത് അതേസമയം ബാക്കിയുള്ള രാജ്യങ്ങളിൽ നമുക്ക് ഇന്ത്യയിലെ കാര്യം നോക്കിയാൽ നമ്മൾ ഒരു കുട്ടിയെ നമ്മൾ എൽ കെ ജി അല്ലെങ്കിൽ വളരെ കിൻഡർ ഗാർഡൻ വളരെ പ്രൈമറി ക്ലാസ്സ്കളിൽ ചേർക്കുമ്പോൾ തൊട്ടേ കുട്ടി പുസ്തകമാണ് പഠിച്ച് വരുന്നത് അതേസമയം ബാക്കി രാജ്യങ്ങളിലെങ്ങനെയാന്ന് വച്ചാലവിടെ സ്കൂളിൽ ചേരുന്ന ആദ്യകാലങ്ങളിൽ മുതലേ കുട്ടികളെ വളരെ ബേസിക്കായിട്ട് ഭക്ഷണം എങ്ങനെ കൃത്യമായിട്ട് എങ്ങനെ നന്നായിട്ട് കഴിക്കാം അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഭക്ഷണം ഒരാൾക്ക് എത്ര ആവശ്യമുണ്ട് എന്നുള്ളതനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് എങ്ങനെ ഭക്ഷണം വിളമ്പിയെടുക്കാം അതെങ്ങനെ സ്പൂണോ കയ്യോ ചോപ്സ് സ്റ്റിക്കോ എന്താണോ അവരുടെ ആയുധം അതുപയോഗിച്ച് കഴിക്കാം ഭക്ഷണം എങ്ങനെ വെസ്റ്റേക്കാതിരിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ബേസിക്കായിട്ട് പഠിപ്പിക്കുന്നത് അതുപോലെ ഈ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ പത്രം കഴുകി വെയ്ക്കുക അവർ തന്നെ ഭക്ഷണം കുട്ടികൾക്ക് വിളമ്പി കൊടുക്കുക കുട്ടികൾ തന്നെ അവരുടെ ടോയ്ലെറ്റ്സും അവരുടെ ബാത്റൂംസൊക്കെ ക്ലീൻ ചെയ്യുക അങ്ങനെ വളരെ ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരവർ തന്നെ ചെയ്യുന്ന ഒരു രീതിയാണുള്ളത് അതേസമയം ഇന്ത്യയിൽ അങ്ങനെയല്ല ഇന്ത്യയിൽ കുട്ടികൾ മുഴുവൻ സമയവും ഒരു പുസ്തകം ഉപയോഗിച്ചുള്ള ഒരു പഠന രീതിയാണുള്ളത് അതുപോലെ തന്നെ കുറച്ചൂടെ ഉന്നത വിദ്യാഭ്യാസ രീതി എത്തിക്കഴിഞ്ഞാൽ കൂടുതലും ഇന്ത്യയിൽ മാതാപിതാക്കൾക്ക് കുട്ടികളെ ഒരു ഡോക്ടറോ എൻജിനീയറോ ഒരു ഐ എ എസ് ഓഫീസറോ ഒക്കെ അങ്ങനെയുള്ള വൈറ്റ് കോളർ ജോലികൾക്ക് വിടാനാണ് താൽപ്പര്യം അവരുടെ മനസ്സിലുള്ള അവരുടെ സ്വതസിദ്ധമായ കഴിവുകളൊ അവരെന്തെങ്കിലും കായികപരമായോ കലാപരമായോ അവർക്കെന്തെങ്കിലും വാസനയുണ്ടെങ്കിലതിനെ വികസിപ്പിക്കാനോ അതിനെ ഒരു പ്രഫഷനാക്കി മാറ്റാനുള്ള സഹായം ചെയ്യാനോ ഒന്നും മാതാപിതാക്കൾ മുതിരാറില്ല എപ്പോഴും അവർക്ക് കുട്ടികളെ വളരെ സാമ്പത്തിക പരമായി ഭദ്രതയുള്ള ജോലികളിലേക്ക് നയിക്കാനാണ് താൽപ്പര്യം അതിന് വേണ്ടി കുട്ടികളുടെ മേൽ അമിതമായ ഒരു സമ്മർദ്ദം ഉണ്ടാകാറുമുണ്ട് പലപ്പോഴും മാതാപിതാക്കൾ കുട്ടികളെ അതെ ക്ലാസ്സിലുള്ള മറ്റ് കുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതവരുടെ വളരെ ചെറിയ മനസ്സിലെത്ര മാത്രം മുറിവ്ണ്ടാക്കും എന്നാരും ചിന്തിക്കാറില്ല ഈ ഒരു രീതിയിൽ കംപേർ ചെയ്യുന്നതും അതുപോലെ അതേ ക്ലാസ്സിലുള്ള പല കുട്ടികളുമായി കംപേർ ചെയ്യുന്ന രീതി അദ്ധ്യാപകരിൽ പോലും കണ്ട് വരാറുണ്ട് അദ്ധ്യാപകരിൽ പോലും കണ്ട് വരാറുണ്ട് അപ്പോൾ അത് വളരെ വലിയ ഒരു ഇന്ത്യേലെ നമുക്ക് അത് അങ്ങനെ ഒരു അദ്ധ്യാപകർ ഒരു ക്ലാസ്സിലുള്ള ഒരു കുട്ടി ആ ക്ലാസ്സിലെ മറ്റ് കുട്ടികളുമായി കംപേർ ചെയ്യുന്നതും വളരെയധികം പഠനത്തിൽ മാത്രം മുന്നോട്ട് നിൽക്കുന്നൊരു കുട്ടിയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും മറ്റ് കുട്ടികളോടൊരു ചേരി തിരിവ് കാണിക്കുകയും ചെയ്യുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം എടുത്താൽ ഇന്ത്യയിൽ വളരെ റിസർച്ച് എന്നുള്ള കാര്യം വളരെ കാര്യമായിട്ട് നടക്കുന്നില്ല എന്ന് വേണം കരുതാൻ അതിനുള്ള സാമ്പത്തിക പരമായിട്ടുള്ള ഫണ്ടും അങ്ങനെയുള്ള റിസർച്ച് ചെയ്യുന്ന വിദ്യാർഥികൾക്ക് കിട്ടുന്നില്ല എന്ന് വേണം പറയാൻ അതേ സമയം വിദേശ രാജ്യങ്ങളിൽ വളരെ സജീവമായിട്ട് റിസർച്ച് നടക്കുന്നുണ്ട് റിസർച്ച് നടക്കുന്നുണ്ടെന്ന് മാത്രമല്ല ബാക്കി കുട്ടികളുമായി ബാക്കി രാജ്യങ്ങളിലെ ഇതുപോലെ റിസർച്ച് ചെയ്യാൻ താൽപ്പര്യമുള്ള ആൾക്കാരെ അവരെ അങ്ങോട്ടേക്ക് അവരുടെ രാജ്യത്തേക്ക് ക്ഷണിക്കുന്നുമുണ്ട് ഇതക്കെയാണ് പ്രധാനമായും നമുക്ക് ഒരു വ്യത്യാസമായിട്ട് തോന്നുന്നത് പിന്നെ ഇന്ത്യേലെ കൂടുതലായിട്ടും സ്കൂളുകളിൽ കൊണ്ട് വരേണ്ട ഒരു കാര്യന്താന്ന്ച്ചാൽ സെക്സ് എഡ്യൂക്കേഷൻ സെക്സ് എഡ്യൂക്കേഷനിവിടെ ഒട്ടും തന്നെ കാര്യമായി നടത്തുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അത് കാര്യമായിട്ട് അതിന് വേണ്ടീട്ട് ഒരു പ്രത്യേകമായിട്ട് ഒരു സെക്സ് എഡ്യൂക്കേഷന് വേണ്ടീട്ടൊരു ടീച്ചറിനെയോ അല്ലെങ്കിലങ്ങനെ ഒരു സന്നദ്ധ സംഘടനയിലെ ഒരു പ്രവർത്തനം ചെയ്യുന്ന ഒരാളേയോ പെർമനൻറ്റായിട്ട് എല്ലാ സ്കൂളുകളിലും നിയമിക്കണം അത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ് അതക്കെയാണ് മെച്ചപ്പടുത്തണം എന്ന് തോന്നീട്ടുള്ള കാര്യം പിന്നെ പുറം പുറത്തുള്ള രാജ്യങ്ങളിലൊരു ജനി ജനിച്ചൊരു സ്കൂളിലേക്ക് വന്നൊരു കുട്ടിയെ എങ്ങനെ അവർക്ക് ഇൻഡിപെൻറ്റാകാം സ്വതന്ത്രമായി അവർക്ക് അവരുടെ കാര്യങ്ങളെങ്ങനെ ചെയ്യാം എന്ന് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ബന്ധങ്ങളുടെ വിലയറിയാനുള്ള വിലയറിയില്ല അത് അവിടെ കുറവാണ് അതേസമയം നമ്മുടെ ഇന്ത്യയിൽ അത് അച്ഛനും അമ്മയും ബാക്കിയുള്ളവരുമായിട്ടവരുടെ കുടുംബാഗങ്ങളുമായിട്ടും ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളായിട്ടുള്ള റിലേഷൻ വളരെയധികം സ്ട്രോങ്ങാണ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ